ഹലോ ആ ചേട്ടാ എൻ്റെ പേര് ഷോബിൻ എന്ന് പറയുവെ ആ നമുക്ക് ഇച്ചിരി ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടിയൊക്കെയായിരുന്നു നിങ്ങളുടെ ഭാഗത്ത് സ്ഥലം ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെയൊക്കെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു അങ്ങനെ അറിഞ്ഞിട്ട് വിളിക്കുന്നതാണെ നമ്മളൊരു ഇടുക്കി റേഞ്ച് തന്നെയാണ് നോക്കുന്നത് ടൗൺ ഏരിയയായി ആ ആ ആ നമുക്കൊരു മൂന്നാർ സൈഡൊക്കെ മതി കാരണം വെച്ചാൽ ടൂറിസ്റ്റ് ഒക്കെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെറ്റ എടുക്കാനായിട്ടാണെ റിസോർട്ട് അങ്ങനെയൊക്കെ പണിയാനായിട്ട് ആയിരുന്നെ എന്തോ ആ നമുക്ക് അങ്ങനെ മതി അപ്പം നമുക്ക് റോഡ്സൈഡ് ഒക്കെ ആയിരിക്കണം ഇച്ചിരി ഉള്ള് ഏരിയ അങ്ങനെയൊന്നും പറ്റത്തില്ലെ അപ്പം നമുക്ക് ആ റിസോർട് പണിയാനായിട്ടാണ് അപ്പോൾ ഗസ്റ്റുകളൊക്കെ നമ്മൾ ടൂറിസ്റ്റിന് വേണ്ടി ആയിട്ടാണ് ആ നമ്മുക്കൊരു പത്ത്പതിനഞ്ച് ഏക്കർ കിട്ടിയാൽ കുഴപ്പം ഇല്ല റോഡ്സൈഡ് ഒക്കെ ആയിട്ട് ആണെങ്കിൽ

ഉണ്ടല്ലേ ആ ഹാ കുഴപ്പം ഇല്ല പത്ത് ഏക്കർ അല്ലേ കുഴപ്പം ഇല്ല കുഴപ്പം ഇല്ല

പഴയ പട്ടയം അല്ലേ ആ അല്ലേ ഓക്കേ ഓക്കേ ഓക്കേ പഴയ പട്ടയം അല്ലേ പഴയ പട്ടയം ആണോ ആ ഓക്കേ ഓക്കേ വെള്ളം ഒക്കെ ടൗണിലല്ലേ ആ ഓക്കേ എന്നാൽ ആ നമുക്ക് ആ ഓക്കേ അവിടെ പുല്ലൊക്കെ കൃഷി ചെയ്യാനുള്ള ഇതൊക്കെയുണ്ടോ ഉള്ളതാണല്ലേ ഉണ്ടല്ലേ ഓക്കേ ഓക്കേ ആ ഞാൻ ഇറങ്ങാം ഇറങ്ങാം പിന്നെ ഞാൻ വിളി ആ ഓക്കേ ഓക്കേ ഓക്കേ